കാർഷിക മേഖലയിൽ വാഴ കൃഷി മഴയ്ക്ക് മുമ്പുള്ള നവംബർ മാസങ്ങളിലാണ് നമ്മൾ സാധാരണയായിട്ട് നല്ല ഫലം കിട്ടുന്നതിനും വാഴയെ സംരക്ഷിക്കുന്നതിനും അതാണ് നല്ലത് അത്പോലെ തന്നെ റബറും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് നമുക്ക് തുലാമഴ കഴിഞ്ഞ ഉടനെ തന്നെ അത് കുഴിയെടുത്ത് വൃത്തിയാക്കി അത് നമുക്ക് ജൂൺ മാസം തൈ നടത്തക്ക രീതിയിലാണ് നമ്മൾ സജ്ജീകരിക്കേണ്ടത് നമ്മുടെ ഈ മേഖലയിൽ കൂടുതൽ റബ്ബർ കൃഷിയാണ് കൂടുതലായിട്ടുള്ളത് അതിൻ്റെ സംരക്ഷണം നല്ല രീതിയിൽ നടന്നു പോകുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ഏർപ്പെട്ട് നിൽക്കുന്നു ജൂൺ മാസത്തിൽ തൈ വെക്കണം അതിന് മുമ്പ് അതിന് കുഴി എടുത്ത് മണ്ണ് നിറച്ച് അത് സംരക്ഷിക്കാൻ സംരക്ഷണ യോഗ്യമാക്കി തീർത്ത് ഇടേണ്ടതാണ് അതിനുള്ള സംഭവമാണ് അവിടെ ചെയ്യേണ്ടത് നല്ല രീതിയിൽ കുഴിയെടുത്ത് നല്ല തൈ നല്ല ഫലപൂയിഷ്ടമായ റ റബ്ബർ ബഡ് ചെയ്ത് അതിനെ അതിൽ ഇടുവാണ് ചെയ്യുന്നത് അതാണ് റബ്ബറുമായിട്ടുള്ള റബ്ബറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ